നമുക്ക് ഇവിടെ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി അതാണാ എന്തോക്കയോ കാര്യങ്ങള് ഒക്കെ ഉണ്ട് അവര്ക്ക് ചെയ്യാൻ അവർ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് പൈപ്പ് കണക്ഷന് ഒക്കെ ഇട്ടു തന്നീന് ലൈറ്റ് ഒക്കെ ഇട്ടു തന്നീന് റോഡ് ഉണ്ടാക്കിന് പിന്നെ പുറകില് ഒരു ഗ്രൌണ്ട് കെട്ടിട്ട് വോളിബോലൊക്കെ വാങ്ങിച്ചു കൊടുത്തിന് മെയിനായിട്ട് ഇതുതന്നെ മൂടി കിടക്കുന്ന മൂന്ന് കിണർ ഉണ്ടായിരുന്നു അത് തേവി നല്ല കിണറാക്കി പൈപ്പ് കണക്ഷന് ഒക്കെ കൊടുത്ത് മോട്ടോര് ഇട്ടു കൊടുത്ത് പൈപ്പില് ആള്ക്കാര്ക്ക് വെള്ളം എടുക്കാന് അങ്ങനെയൊക്കെ പണിയാണ് ചെയ്തു കൊടുക്കുന്നത്